ആ ഞാൻ ഒരു ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ റംഷീന കോഴിക്കോട്

ആ മറ്റന്നാളത്തേക്ക് ബാംഗ്ലൂർ ടു ചെന്നൈ ഒരാളേ ഉള്ളൂ എത്രയാണ് റേറ്റ് മോർണിങ്ങ് കിട്ടിയാൽ നല്ലതായിരുന്നു

അതെ ആ റിട്ടേൺ ഉണ്ടോ

ആ അതെ ആ ആ

ആ കിട്ടും

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓ താങ്ക് യു